ഇപ്പം പൊതുവേ സ്ത്രീകളോടൊക്കെ കാണിക്കുന്ന വേര്തിരിവ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകള്ക്കു പൊതുവേ ജോലി ഒക്കെ കുറവായിരിക്കും കാരണം അങ്ങെനെ ആരും ജോലികള്ക്കൊന്നും അങ്ങനെ ഈക്വാളിറ്റി കൊടുക്കുന്നില്ലായിരുന്നു പിന്നെ പൊതുവേ സ്ത്രീകള്ക്കുള്ള സാലറിയെന്ന് പറയുമ്പോൾ ആണുങ്ങളെ അപേക്ഷിച്ച് അവര്ക്ക് കുറവായിരിക്കും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകള്ക്കുള്ള സാലറി എന്നും കുറവ് തന്നെയാണ് അവര്ക്ക് കുറവാണ് സാലറി ഉണ്ടാവുക

പിന്നെ ആണിനെ അപേക്ഷിച്ച് പെണ്ണ് എന്തോ ഒരു സ്ത്രീകൾ എന്തോ താഴ്ന്ന ഒരു ഇതാണെന്നുള്ള രീതിയിലാണ് ഇപ്പോഴും പൊതുവേ സമൂഹത്തിൽ എല്ലാവരും സ്ത്രീകളെ വച്ച് കമ്പയർ ചെയ്യുന്നത്